എനിക്ക് സാദാരണയായി രണ്ട് സ്ഥലത്തെയും ഭക്ഷണം എനിക്ക് കൂട്തൽ പ്രിയപ്പെട്ടതാണ് എനിക്ക് ഹോട്ടലിലെ ആയാലും വീട്ടിലായാലും എനിക്ക് രണ്ടും താല്പര്യമുള്ള മേഖലയാളാണ് എന്നാലും കൂട്തൽ വീട്ടിലുണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കിത്തരുന്ന ഭഷ്ണമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അമ്മ അമ്മ ഉണ്ടാക്കിത്തരുന്ന നാച്ച്വറൽ ആയിട്ടുള്ള ഈ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓമയ്ക്ക അതുപോലത്തെ ഓമയ്ക്ക അതുപോലത്തെ ഒക്കെ തോരനും ഒക്കെ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്ഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് എന്നാൽ ഹോട്ടൽ ഫുഡിന് ഞാൻ എനിക്ക് വലിയ താൽപര്യമില്ല എന്നാലും താല്പര്യമുണ്ട് ഹോട്ടലിൽ നിന്നാണെ ബിരിയാണി പൊറോട്ട കറി അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തിൽ നമ്മൾ ഇത് വരെ തിന്നാത്തതായിട്ടുള്ള ന്യൂജൻ ഫുഡ്സ്സ് അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ളു ഞാൻ ഹോട്ടലുകളിൽ കൂടുതലും പോകാറുള്ളു അല്ലേ ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടിലെ ഫുഡ്ഡാണ് കഴിക്കുന്നത് എനിക്ക് ഇപ്പം ഹോ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് വീട്ടിലെ ഫുഡ്ഡിനെയൊക്കെ ഞാൻ കുറേ മിസ്സ് ചെറ്റയ്യുന്നുണ്ട് എന്നാൽ ഇപ്പം ഹോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ ഫുഡ്ഡും ഹോട്ടലിലെ ഫുഡ്ഡുമാണ് കൂടുതൽ എന്നാൽ വീട്ടിലെ ഫുഡ്ഡ് ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും പ്രീപ്പയർ ചെയ്യാൻ നോക്കും അത് കാരണം വീട്ടിലെ ഫുഡ്ഡ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം വീട്ടിലെ ഫുഡ്ഡെന്ന വാക്ക് പറയുമ്പത്തേനും അമ്മ ഉണ്ടാക്കിത്തരുന്ന ചൂട് ചോറും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മകളിലേക്ക് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ചോറും നെയ്യും പപ്പടവുമൊക്കെ അതൊക്കെ അമ്മ നല്ല തുമ്പപ്പൂ പോലെ ഇരിക്കുന്നതൊക്കെ ചോറൊക്കെ റെഡിയാക്കി തരും അപ്പം അതെല്ലാം കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും വീട്ടിൽ അമ്മ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡ്ഡിൻ്റെ അത്രയും ഹോസ്റ്റൽ ഫുഡ്ഡൊ ഹോട്ടലിലെ ഫുഡ്ഡൊ ഒന്നും വരില്ല അമ്മ ഇങ്ങനെ ഉണ്ടാക്കിത്തരുന്ന നാച്ച്രാലായിട്ടുള്ള എന്തെങ്കിലും ഒരു കറി കിട്ടി നമ്മൾ കഴിക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുമ്പം അതിൻ്റേതായ കൂടുതൽ നമ്മൾ അതിന്റെ സ്വാദ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ഹോട്ടൽ ഫുഡ്ഡും താല്പര്യം ന്യൂജെൻ ഫുഡ്സ്സ് എനിക്ക് അതിനും താൽപര്യമുണ്ട് രണ്ടിനും എനിക്ക് താല്പര്യമുണ്ട് എന്നാലും കൂടുതൽ എനിക്ക് എന്റെ വീട്ടിലെ ഫുഡ്ഡാണ് ഇഷ്ടം